ഹലോ ഇത് ഇത് പാരഗൺ റെസ്റ്റോറൻറ് അല്ലേ എനിക്ക് ചൂട് ദോശയും സാമ്പാറും വേണമായിരുന്നു എത്തിക്കാൻ പറ്റുമോ ഇത് മായത്ത് ജംഗ്ഷനിൽ എത്തിച്ചാൽ മതി എത്ര രൂപയാണ് അഞ്ച് ദോശയും സാമ്പാറും

വേറെ എന്നാ കറി ഉണ്ട് ചിക്കൻ കറി ഒന്ന് ഓ ഒരു ചിക്കൻ കറി വെച്ചേര് അത്രയും മതി

മായം ജംഗ്ഷൻ ആശുപത്രിയുടെ അടുത്ത് ആശുപത്രിയുടെ അടുത്ത് ചിന്നൂസ് കട ഉണ്ട് അവിടെ കൊടുത്താൽ മതി എന്നാലും ഒരു പത്ത് മിനിറ്റിനകം കൊടുത്ത് വിടില്ലേ ആ ഓക്കെ ഓക്കെ ഒരു പതിനഞ്ച് മിനിറ്റിനകം കൊടുത്ത് വിടണേ

ശരി എന്നാൽ രണ്ട് മിനിറ്റ് ആണോ ആ പിന്നെ ശരി എന്നാൽ ആ അത് കുഴപ്പമില്ല ഞങ്ങൾ കൊടുത്തോളാം ആ ആ അതിൽ ആ ആ അല്ല ഫ്രഷ് ആയിട്ട് കൊടുത്ത് വിടണേ ആ ആ ആ കാണും കാണും വന്നാൽ മതി ആ ശരി എന്നാൽ